എൻ്റെ കൈയ്യിലൊരവസരം കിട്ടിയാൽ ഞാൻ തിരഞ്ഞെടുക്കുന്ന നയങ്ങളെന്ന് പറയുന്നത് കർഷകർക്ക് തന്നെയാണ് മുൻഗണന നൽകുന്നത് ഇപ്പം കർഷകരില്ലെങ്കിലും നമ്മളാരും ഒന്നും ഭ ഭക്ഷണത്തിന് വരെ കർഷകരോടാണ് നമ്മൾ ഏത് താഴ്മപ്പെട്ടിരിക്കേണ്ടത് ഇപ്പം കർഷകരില്ലെങ്കിൽ നമുക്ക് അരിയോ അതുപോലെ ഇപ്പം നമുക്ക് റേഷൻ കാർഡിലാണെ തന്നെ മുൻഗണന പരിധിയിൽ പെട്ടവരുണ്ട് പിന്നെ എ പി എൽ കാർഡുണ്ട് ബി പി എൽ കാർഡുണ്ട് എന്നിങ്ങനെ ഒരുപാട് കാർഡ് തരം തിരിച്ച് ഒരു കാർഡുണ്ട് അപ്പം നമുക്ക് ബി പി എൽ കാർഡുകാർക്കൊക്കെ ഒരുപാട് പിന്നെ സബ്സിഡികളും അതുപോലെ അരി ചെറിയ വിലക്ക് അരിയൊക്കെ കിട്ടുന്നുണ്ട് അപ്പം ഇതൊക്കെ കർഷകർ തന്നെ കർഷകരുള്ളതു കൊണ്ടാണല്ലോ നമുക്കിങ്ങനെ ഒരുപാടിങ്ങനെ അരിയും സാധനങ്ങളൊക്കെ കിട്ടുന്നത് അപ്പം കർഷകർക്ക് വേണ്ടി അവർക്ക് കൂടുതലായിട്ടുള്ള പിന്നെ കുറഞ്ഞ പലിശ നിരക്കിൽ ലോൺ പ്രൊവൈഡ് ചെയ്യാ പിന്നവർക്കെന്തെങ്കിലും ഒരു നാശ നഷ്ടങ്ങളൊക്കെയുണ്ടെങ്കിൽ അവർക്ക് നാശ നഷ്ടങ്ങളൊക്കെയുണ്ടെങ്കിൽ അവർക്ക് പിന്നെ ഒരു പൈസ അവർക്ക് ഫ് ഫിനാൻസായിട്ട് അവർക്ക് അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് എന്തെങ്കിലും കൃഷിയായിട്ട് ബന്ധപ്പെട്ടെന്തെങ്കിലും ഒരു നാശങ്ങളൊക്കെ വന്നാലവരെ സഹായിക്കുക പിന്നെ അവരുടെ കുടുംബത്തിനെന്തെങ്കിലും ഒരു പിന്നെ ഇപ്പം കർഷകരുടെ കു കുടുംബങ്ങളിലെ കുട്ടികൾക്കാണെങ്കിലും എഡ്യൂക്കേഷനിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുക അതൊക്കെ ചെയ്യും ഞാൻ